ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ നമുക്ക് ഒരുപാട് വൃദ്ധസദനങ്ങൾ ശിശു സംരക്ഷണങ്ൾ അതുപോലെ സംരക്ഷണ കേ കേന്ദ്രങ്ങൾ പിന്നതുപോലെ ഇപ്പോൾ സഹായ ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ വീടും കുടിയൊന്നും ഇല്ലാത്തവർക്കുള്ള സഹായം എന്നിങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കിടയിൽ കാണാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആയിക്കോട്ടെ എന്തെങ്കിലും രോഗം ബാധിച്ച കുട്ടികൾക്കിപ്പോൾ അവർക്ക് ചികിത്സ അല്ലെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസയില്ലാത്ത ഇല്ലാതായാൽ ഒരു കൂട്ടം ജനങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരസ്യം കൊടുക്കുകയും അതിലൂടെ ഇപ്പം നമുക്ക് ഒരു ഒരു വീട്ടിൽ നിന്നും ഒരു രൂപ കൊടുത്താലും ഇപ്പം ഒരുപാട് ജന കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരു ഒരു രൂപ വെച്ച് ഇപ്പം ഗൂഗിൾ പേയൊക്കെ വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷനുള്ള പൈസ കൈവരിച്ചിട്ട് അവർക്ക് നൽകുകയും അവരുടെ സു അസുഖങ്ങൾ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഭവന രഹിതരായ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ചില അവരിൽ എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ചെറിയ ഒര് അ അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു വീട് നിർമ്മിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ തന്നെ നൽകുന്നൊരു പദ്ധതിയാണ് വീട് ഭവന പദ്ധതി അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ വീട് വീടെടുക്കാൻ അല്ലെങ്കിൽ തറ കെട്ടാനോ പൈസ ഇല്ലാത്തവർക്ക് ഇപ്പം അഞ്ച് സെന്റ് ഭൂമിയുള്ളവർക്കൊക്കെ ഒരു അതിനുള്ളൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ധന സഹായം നൽകുക അല്ലെങ്കിൽ അവർക്ക് വീട് വെയ്ക്കാനുള്ള ഒരു അഞ്ച് ലക്ഷം രൂപ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിരവധി ഉണ്ട് അപ്പം അതൊക്കെ തന്നെ ഇപ്പം വൃദ്ധസദനങ്ങൾ ആയിക്കോട്ടെ ഒരുപാട് വൃദ്ധ ഇപ്പം ചെറിയ ഇപ്പം അമ്മമാർ അച്ഛന്മാരൊക്കെ വയസ്സാകുമ്പോൾ മക്കൾക്ക് നോക്കാൻ പറ്റാതാകുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലേക്കാണ് തള്ളുന്നത് അതുപോലെ ഇപ്പോൾ സി ശിശു ഇപ്പോൾ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്കൊക്കെ ഒരാശ്വാസമായിട്ട് പല വൃദ്ധസദനങ്ങളും ശിശുസംരക്ഷണങ്ങളും കോഴിക്കോട് ജില്ലയിലല്ല കേരളത്തിലുടനീളം നമുക്ക് കാണാം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് നാല് സ്ഥാപനങ്ങൾ അങ്ങനെ കാണാം ഇപ്പോൾ വൃദ്ധസദനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛനമ്മമ്മാരെ നല്ല രീതിയിൽ നോക്കുകയും അവർക്കായുള്ള ഭക്ഷണങ്ങൾ നൽകുകയും അവരുടെ കൂടെ കളിച്ച് അവയ്ക്ക് നല്ല രീതിയിൽ നല്ലൊരു മനസ്സ് നല്ലൊരു മാനസികാവസ്ഥയിൽ അവരെ കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങളും അതുപോലെ സം സംരക്ഷിക്കുന്നുണ്ട് സഹായിക്കുന്നുമുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾക്കിടയിൽ തന്നെ നമുക്ക് കാണാം